മലയാള ഭാഷയെ കുറിച്ച് പറയാൻ ആണെങ്കിൽ ഇപ്പം പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പം നമ്മുടെ ഈ നാടുകളിൽ നടന്നോണ്ടിരിക്കുന്നത് ഉദാഹരണം എന്ന് പറയുമ്പം പണ്ട് കാലങ്ങളിൽ ഉള്ളവർ എല്ലാവരും സംസാരിച്ചോണ്ടിരുന്ന മലയാളം ആയിരുന്നു ഇപ്പം പുതിയ ജെനറേഷന്ന്ന് പറയുമ്പം കൂടുതലും യൂസ് ചെയ്യുന്നത് വേറെ വേറെ ലാങ്വേജ്കൾ ആയിരിക്കും എല്ലാവർക്കും തന്നിപ്പം ഇങ്ക്ലീഷ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആണിപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് പണ്ടെന്ന് പറയുമ്പം ഇപ്പം നാല് പേര് കൂടുന്ന ഏതേലും കവലയോ അല്ലെങ്കിൽ കല്യാണം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പം അവർ എല്ലാവരും കൂടി ഒത്ത് ചേർന്നിരുന്ന് ഒന്നില്ലെങ്കിൽ പാട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ വിശേഷങ്ങൾ ഒക്കെ മലയാളത്തിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല ഇപ്പോൾ അവർ കൂടുതലും ഒന്നില്ലങ്കിൽ ഫോൺറ്റാത്ത് കുത്തി ഇതാക്കി കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഓരോത്തരി ഉള്ളി കൂടുതലും ഇങ്ക്ലീഷ് കാര്യങ്ങൾ അങ്ങനൊക്കെ ആയിരിക്കും സംസാരിച്ചോണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഉദാഹരണം എന്ന് പറയുമ്പോൾ പണ്ട് എല്ലാവരും പത്രങ്ങൾ കാര്യങ്ങൾ ഒക്കെ മലയാളം പത്രങ്ങൾ വായിച്ചോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതെന്ന് പറയുമ്പം മലയാള ഭാഷ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ മനസിലാക്കാനും വായിക്കാനും എഴുതാൻ അങ്ങനുള്ള കാര്യങ്ങൾ ഒക്കെ മനസ്സിലാകും ആയിരുന്നു ഇപ്പം ഉള്ള കുട്ടികൾക്ക് ആയാലും മുതിര്ന്നവര്ക്ക് ആയാലും മലയാളം എന്ന് പറയുന്നത് വായിക്കാനും അറിയത്തില്ല അറ്റ്ലീസ്റ്റെഴ്താനും അങ്ങനെ ഓവറൊന്നും അറിയാത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും അവർ എന്തൊക്കെയോ ഒരിത് വെച്ചിട്ടാണവർ ഇപ്പം നിൽക്കുന്നത് കൂടുതലും അവര്ക്ക് അറിയുന്നത് ഇങ്ക്ലീഷാരിക്കും ഇങ്ക്ലീഷെഴ്താനും വായിക്കാനും മീനിങ്ങും അതിന്റെ എല്ലാ കാര്യങ്ങളും അവര്ക്ക് അറിയാം മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരും അങ്ങനെ സംസാരിക്കലും കുറവാണ് മലയാളം പിന്നെ അതിന്റെ അർത്ഥങ്ങൾ അറിയത്തില്ല ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് മലയാളം ആയിട്ടിപ്പം ബന്ധപ്പെട്ട് ഉദാ മേയ്ന് ഇതെന്ന് പറയുക പ്രശ്നം എന്ന് പറയുമ്പം ആരും ഒന്നില്ലെങ്കിൽ മലയാളം വായിക്കത്തില്ല കൂടുതൽ ഇപ്പം മലയാളത്തിലല്ലല്ലോ നമ്മൾ ഇപ്പം ഒരു മെസേജയ്ക്കുവാണെങ്കിൽ എല്ലാം ഇങ്ക്ലീഷിലാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇതിൽ പറ്റ് ജെനറേഷൻൽ വരുന്നത് അങ്ങനെ ഉള്ള പലതരത്തിൽ ഉള്ള കാര്യങ്ങൾ നടക്കുന്ന കൊണ്ട് ഇപ്പം ഉള്ളവര്ക്ക് മലയാളത്തിനോട് അത്യൊരു അധികം താൽപ്പര്യമില്ല ഇപ്പം കൂടുതൽ ഇപ്പം പുറത്ത് എവിടെ പോകുന്നതിനും ഇങ്ക്ലീഷാണല്ലോ അപ്പം അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ക്ലീഷിലോട്ടാണ് ഇങ്ക്ലീഷാണെല്ലാവരും തന്നെ ഇങ്ങനെ പഠിക്കുന്നതും ഉദാഹരണത്തിന് ഇപ്പം പഠിക്കുന്നത് അങ്ങനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ഇങ്ക്ലീഷാണ് മലയാളം എന്ന് പറയുന്ന ഭാഷ അധികം ആരും തന്നെ ഇപ്പം പറയലില്ല പോട്ടേ പറയലും ഇല്ല പിന്നെ അങ്ങനെ ഓവറ് ഇപ്പം നാല് പേര് കൂടുന്ന സ്ഥലത്ത് ഞങ്ങൾ മലയാളം പറയില്ല അവർ അവര്ക്ക് തോന്നിയ രീതിക്ക് ഓരോ ഭാഷകളായിരിക്കും അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത്